എൻ്റെ ഫോണിലെ ക്യാമറ ഉപയോഗിച്ചിട്ട് ഞാൻ ഇങ്ങനെ കുറേ പൂക്കളൊക്കെ എടുക്കാറുണ്ട് എൻ്റെ വീട്ടിൽ നിറയെ പൂക്കളുണ്ട് നിറയെ നല്ല നല്ല ചെടികൾ നല്ല കളർ അപ്പോൾ ആ പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ എടുക്കാറുണ്ട് പിന്നെ എന്താണ് നല്ല നല്ല പൂക്കളിലെ പൂക്കളില് ഇങ്ങനെ പൂമ്പാറ്റയൊക്കെ വന്നിരിക്കുന്ന ആ പൂമ്പാറ്റയെ ഒക്കെ ഞാൻ ഫോട്ടോ എടുക്കാറുണ്ട് പിന്നെ പഞ്ചായത്ത് പണിക്കൊക്കെ പോകുന്ന സമയത്ത് അവിടെ കാണുന്ന ചെടികള് അവിടെ എന്തെങ്കിലും പുതിയ പുതിയ കാട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ചെറിയ ചെറിയ അത്യ എന്താണ് അത്ഭുതപരമായിട്ടുള്ള ജീവികളെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രാണികളോ നല്ല ഭംഗിയുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനത് ഫോട്ടോ എടുത്ത് വയ്ക്കാറുണ്ട് പിന്നെ എൻ്റെ മക്കളുടെ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട് നല്ലത് പൂക്കളാണ് പൂക്കളും ചെടികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പെട്ടെന്ന് എടുക്കുക ജീവികളുടെയൊക്കെ ഇതൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തിട്ട് ഞാൻ എൻ്റെ ഫോണില് എടുത്തുവയ്ക്കാറ് പിന്നെ കുട്ടികളുടെ ഡാൻസ് പരിപാടികളൊക്കെ ഞാൻ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുത്തിട്ടും വീഡിയോയൊക്കെ എടുത്തിട്ട് അയക്കാറുണ്ട് പിന്നല്ലാതെ ഒന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല